ആ മീര എനിക്ക് ആണെങ്കിൽ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ പാസ്പോട്ടിന് ഓഫീസിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പം രണ്ടുമാസത്തോളമായി അത് വന്നിട്ട് ഇനി കാലിന് നല്ല താമസം കാണുമായിരിക്കും അപ്പത്തേനും ഇനി ഞാൻ ഓഫീസിൽ വിളിച്ച് എൻ്റെ കാര്യത്തി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇനി വിളിക്കാൻ ഇരിക്കുവാണ് എനിക്ക് അത്യാവശ്യവായിട്ട് ഒന്ന് ചെല്ലേണ്ടതായിരുന്നു അമേരിക്കയിലോട്ട് അപ്പോൾ ഇനി ഇപ്പം എന്നാൽ ചെയ്യുന്നത് എന്നറിയത്തില്ല ഇനി ഓഫീസിലേക്ക് ഒന്ന് വിളിക്കണം അവർ ഇനി എന്നാൽ പറയുന്നതുനുള്ള അറിഞ്ഞിട്ട് വേണം ഇനി എൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പിന്നെ ഈ അമേരിക്കയിൽ പോകാതിരിക്കാനും പറ്റത്തില്ല ഇപ്പം ഇത് ഇനിയിപ്പം രണ്ടുമാസത്തോളമായി ഞാൻ പാസ്പോർട്ടിന് കൊടുത്തിട്ട് അപ്പം ഈ ഇത്രയും കാലതാമസമുണ്ടെങ്കിൽ അതിന് എന്താണ് കാരണമെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടെ വിളിച്ചു ഞാൻ വിളിക്കാത്തത് കൊണ്ടായിരിക്കാം അതിന് പിന്നെ കാരണമെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടെ അതിനുവേണ്ടി ഞാൻ ഇന്ന് വിളിക്കാൻ ഇരിക്കുവാണ് പിന്നെ ഇനി ഇപ്പം ഞാൻ അന്വേഷിച്ചില്ലെങ്കിൽ തന്നെ അവർ ആ കാര്യം വിട്ടു പോയി ചിലപ്പം ഇനി ഒത്തിരി വർക്കുകൾ ഉള്ളതു കൊണ്ട് അവർ വിട്ടുപോയതായിരിക്കും അപ്പം ഞാൻ ഇത് എന്തായാലും ഒന്ന് വിളിക്കാൻ ഇരിക്കുവാണ്